വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അതായത് നമ്മള് ഇപ്പം രാവിലെ കാലത്ത് എണീക്കുന്നത് തൊട്ട് നമുക്ക് രാത്രി നമ്മള് കിടക്കുന്നത് വരെ നമുക്ക് വെള്ളത്തിന്റെ ഉപയോഗം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം വെള്ളമില്ലാണ്ട് നമുക്ക് ഒന്നും ഒരു കാര്യവും നമുക്ക് നടക്കൂല ഇപ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാള് മൂന്നു ലിറ്റര് വെള്ളത്തോളം കുടിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമുക്കിപ്പം വെള്ളം തിളപ്പിച്ചു കുടിക്കണം എങ്കില് തന്നെ നമുക്ക് വെള്ളം വേണം പിന്നെ രാവിലത്തെ നമ്മുടെ അതായത് പ്രഭാത കൃത്യങ്ങള് കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലോ അതായത് പല്ല് തേക്കല് കക്കൂസിൽ പോക്ക് അങ്ങനെയുള്ള പരിപാടി ഒക്കെ അപ്പം അതിനൊക്കെ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം അനിവാര്യം തന്നെയാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ നമ്മള് എന്താന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചോറ് വെക്കണം കറി വെക്കണം ചായ വെക്കണം കാപ്പി വെക്കണം പിന്നെ അതുപോലെ തന്നെ കടികള് ഒണ്ടാക്കണം പിന്നെ വൈകുന്നേരത്തെ ഇവനിംഗ് സ്നാക് കാര്യങ്ങള് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടേൽ അത് ഉണ്ടാക്കണം പിന്നേ കൈകഴുകണം അതായത് ഈ ഭക്ഷണം ഒക്കെ കഴിക്കണമെങ്കില് നമ്മള് കൈ കഴുകണം ഭക്ഷണം കഴിച്ചതിനു ശേഷവും നമ്മള് കൈകഴുകണം അപ്പോൾ അതിനുവേണം നമുക്ക് വെള്ളം പിന്നെ എന്ന് വച്ചാൽ നമുക്ക് കുളിക്കണം എങ്കില് വെള്ളം വേണം അലക്കണമെങ്കില് വെള്ളം വേണം അതായത് നമ്മടെ ഡ്രസ്സുകള് ഒക്കെ അലക്കണമെങ്കില് വെള്ളം വേണം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അതേപോലെ നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് വെള്ളം കുടിക്കണം അതിനു വെള്ളം വേണം നമുക്ക് വെള്ളം ആവശ്യമുള്ള വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും നമുക്ക് നടക്കൂല